ഹലോ ആ അതെ ആ എൻ്റെ പേര് എലിസബത്ത് എന്നാണ് ഞാൻ ഒരു ടൂറിസ്റ്റ് ആയിട്ട് കേരളത്തിൽ വന്നതാണ് ഒരു ഒരു ഒരാഴ്ചയായി വന്നിട്ട് ഞാൻ ഡൽഹി സ്വദേശിയാണ് കേരളം ഒക്കെ ഒന്ന് കണ്ടുകളയാമെന്ന് വിചാരിച്ച് വന്നതാണ് അപ്പം പല സ്ഥലങ്ങളിൽ പോയി അപ്പം എനിക്ക് ഞാൻ ഇത്തിരി സ്വൽപ്പം പ്രായമുള്ള ആളാണ് അതുകൊണ്ട് ശാരീ ശരീരത്തിനൊക്കെ എന്തൊക്കെയോ ഒരു അവിടെ ഇവിടെ ഒക്കെ വേദന പ്രത്യേകിച്ച് നടന്നത് കൊണ്ടായിരിക്കാം കാലിനും കാലിൻ്റെ മുട്ടിനുവൊക്കെ വല്ലാത്ത വേദന അപ്പം ആരോടോ ഇതിനെക്കുറിച്ച് സംസാരിച്ചപ്പം പറഞ്ഞു ഇവിടെ നല്ല നല്ല ആയുർവേദ അവിടെ അവിടെ അവിടെ എവിടെയെങ്കിലും ചെന്നാൽ നല്ല എന്നാ മസാജ് ഒക്കെ ഉള്ള സ്ഥലം ഉണ്ട് ഒക്കെ പറഞ്ഞു അപ്പം അങ്ങനെ പറഞ്ഞപ്പം എനിക്ക് ആരോ തന്ന ഒരു അഡ്രസ്സ് ആണിത് നിങ്ങളെ വിളിച്ചാൽ മതിയെന്ന് പറഞ്ഞു നല്ല അവരൊക്കെ പോയിട്ടുള്ളതാണ് നല്ല സ്ഥലം ആണെന്ന് ഹൈ ക്ലീൻ ആണ് അങ്ങനെ നല്ല വൃത്തിയുള്ള സ്ഥലമാണ് ഹൈജീൻ ആണ് അല്ല അവിടുത്തെ ആൾക്കാരൊക്കെ നല്ല വെരി വെരി ഫ്രണ്ട്ലി ആണ് എന്നൊക്കെ പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ ഇപ്പം വിളിച്ചത് ഇപ്പം അതിനൊക്കെ വന്നാൽ എന്തൊക്കെ ട്രീറ്റ്മെൻറ് ആണ് അവിടെ സാധാരണ ഇങ്ങനെ വരുന്നവർക്ക് കൊടുക്കുന്നത്

ആ

അയ്യോ പതിനഞ്ച് ദിവസം പറ്റില്ല ആകെ എനിക്ക് ഇത് രണ്ടാഴ്ചത്തെ പരിപാടിക്കായിട്ടാണ് വന്നിരിക്കുന്നത് ഇപ്പോൾ ഓൾറെഡി ഒരാഴ്ച്ച കഴിഞ്ഞു അതുകൊണ്ട് ആ ഒരാഴ്ചയ്ക്ക് അകെ ഒരു അഞ്ച് കൂടുതൽ ഈ സ്ഥലങ്ങളൊക്കെ കാണാനും ഉണ്ട് അപ്പോൾ ഒരു ഒരു രണ്ടോ മൂന്നോ ദിവസത്തിൽ കൂടുതൽ എനിക്ക് സ്പെൻഡ് ചെയ്യാൻ ഒക്കുമെന്ന് തോന്നുന്നില്ല അങ്ങനെയാണ്

അത് ഞാൻ ഞാൻ ഞങ്ങളൊരു ഗ്രൂപ്പ് ആയിട്ട് വന്നതാണേ ആ അപ്പം ഗ്രൂപ്പ് ആയിട്ട് തന്നെ തിരിച്ച് പോവണം എന്നുള്ളതാണ് അതിയാ മറ്റുള്ളവർക്ക് ഏ ഓക്കെ ആ നിങ്ങളുടെ അവിടെ വന്നവരിൽ ഞാൻ ഇപ്പം ഇപ്പം ഉള്ളത് ഞാൻ ചുങ്കപ്പാറയിൽ പത്തനംതിട്ടയിലാണ് പത്തനംതിട്ടയിൽ നിന്ന് എങ്ങനെയാണ് നിങ്ങളുടെ അവിടെ വന്ന് വരുന്നത്

ഓക്കെ ആ ഞാൻ വരാം ഞാൻ വരാം നാളെ വരാമേ നാളെ നാളെ ഒരു ആഫ്റ്റർനൂണിലോട് കൂടി വരും ഞാൻ ഓക്കെ വളരെ നന്ദി ഓക്കെ